ഹലോ ഡോക്ടർ ഞാൻ വിളിച്ചത് ഞാൻ അഭിഷേക് ആയിരുന്നു ഞാൻ വിളിക്കുന്നത് രണ്ട് ദിവസമായിട്ട് എനിക്ക് ഭയങ്കര പനിയും തലവേദനയും അപ്പം അതിന് പറ്റിയ കുറയുന്നില്ലായിരുന്നു ഇല്ല കാണിച്ചില്ല പാരസെറ്റാമോൾ കഴിച്ചായിരുന്നു ഒരു നേരം പാരസെറ്റാമോളും പിന്നെ ഒരു ഡോളോ കഴിച്ചായിരുന്നു

തൊണ്ടവേദന തണുത്തവെള്ളം കുടിക്കുമ്പം മാത്രം

ആ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു

ആ ആ ചെറുതായിട്ട് ഇടയ്ക്ക് ആ ഓ എപ്പോളാണ് വരേണ്ടത്

ആ അപ്പോയിൻമെന്റ് അപ്പ്

ആ ആ വരാം എപ്പം അപ്പോയിൻമെന്റ്

ആ ഓക്കെ ഓക്കെ ആ ബുക്ക് ചെയ്യണം അപ്പോയിൻമെന്റ് എപ്പോൾ ആണ്

ആ ഓക്കെ ശരി എന്നാൽ